കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്ന പ്രധാന വിളകൾ സാധാരണ കിഴങ്ങുവർഗങ്ങൾ ചേന ചേമ്പ് ഏത്തക്കായ് മരച്ചീനി പോലുള്ള വിളകൾ ധാരാളമായി നമ്മൾ കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്നുണ്ട് കന്ന്കാലികൾ പശുവളർത്തൽ നമുക്ക് പണ്ടുമുതലേ കേരളത്തിൽ ധാരാളമായി ലാഭകരമായി ചെയ്തോണ്ടിരുന്നൊരു ഇതാണ് പിന്നെ കോഴിവളർത്തൽ ഉണ്ട് മുട്ടക്കോഴി എന്നാലും ഇറച്ചിക്കോഴിയുടെ അന്നേരം കോഴിവളർത്തലും നമുക്ക് ലാഭകരമായി കേരളത്തിൽ നടന്നുവരുന്ന ഒരു കൃഷിയാണ്